ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ടൂറിസം മേഖലയായിട്ട് വോർക്സ് സ്ഥിതി ചെയുന്നതുണ്ട് ഇവിടെ കൂടുതലും നമുക്ക് ഹോം സ്റ്റേയ് അവൈലബിളാണ് നമ്മുടെ അവിടെ ഹൗസ് ബോട്ട് ഹോസ് ബോട്ടാണിവിടെ കുടുതലായിട്ടും മൽസ്യബന്ധന തുഴയ മൽസ്യബന്ധനം ഉള്ളതുകൊണ്ടും ഹൗസ് ബോട്ട് പലതരത്തിലുള്ള വ്യത്യസ്തമായിപെട്ട വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ ഭക്ഷണ ലഭ്യത ഉള്ളതു കൊണ്ടും ആലപ്പുഴയിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ടൂറിസം മേഖലകൾ ദിനംപ്രതി നാട്ടിലുള്ളതും പുറം നാടുകളിൽ നിന്നും വിനോദ സഞ്ചാരികൾ ദിനംപ്രതി എത്തികൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ ഇവിടെ നിന്നിട്ടുണ്ടേൽ ഒരുപാട് സൗജന്യമായിട്ട് താമസം സ്ഥലമുണ്ട് അതല്ലാതെ നമുക്ക് ഹോട്ടലുകളുണ്ട് എല്ലാ സേവനങ്ങളും ഒരുപോലെ കിട്ടുന്നതാണ് ഇവിടെ എല്ലാ ആളുകൾക്കും നല്ലരീതിയിലുള്ള ഭക്ഷണം ഭക്ഷണരീതിയും താമസം സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും സഞ്ചാരി വിനോദസഞ്ചാരികൾ എത്താറുണ്ട് ഒരുപാട് സ്ഥലത്ത് എത്തി എത്താറുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് പുറത്തുമായിട്ടുള്ള ആളുകളാണ് കൂടുതലും എത്താറുള്ളത് കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ് നമ്മളെ ഭക്ഷണ രീതികൾ അവർക്ക് വളരെ അധികം ഇഷ്ടമാണ് പല തരത്തിലുള്ള വിഭവങ്ങളാണ് ദിനംപ്രതി ഒരോ ഫുഡിലും ഓരോ വ്യത്യസ്തത ഉണ്ടായ കാണിക്കുന്നതു കൊണ്ട് അവർക്കത് വളരെ അധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് മത്സ്യത്തിൽ മീൻ മീനാണിവിടെ മീൻ താറാവ് കൊഞ്ച് ചെമ്മീൻ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കപ്പ മീൻ കള്ള് അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്ന കാരണം ഒരുപാട് ലഭ്യത ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അന്നന്ന് കിട്ടുന്ന തന്നെയാണ് അല്ലാതെ ഫുഡ് ഭക്ഷണത്തിനു നമുക്ക് കിട്ടുന്നതല്ല അല്ലാതെ കിട്ടുന്നതല്ല പിന്നെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചെറുത് വലുതും ചെറുതുമായിട്ട് നമ്മുടെ നാട്ടിൽ നാട്ടിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വന്ന് പോവുന്നത് കൊണ്ടു തന്നെ ഇവിടെ ഇപ്പോഴും നമ്മുടെ ആലപ്പുഴ ജില്ലയിലെപ്പോഴും തിരക്കുള്ളൊരു സ്ഥലമാണ് പിന്നെ കൂടുതലും ഇവിടെ വരുന്നത് പുറത്തുന്നുള്ള ആളുകളായത് കൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അതായത് അവരുമായിട്ടുള്ള സമ്പർക്ക രീതിയിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാവരും വളരെ മാന്യമായിത്തന്നെ പെരുമാറുകയും വേണ്ട പോലെ നല്ല രീതിയിൽ തന്നെ ഇടപെടുകയും ചെയ്യുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ താമസം സൗകര്യം താമസത്തിനു വരുന്ന സ്ഥലങ്ങൾ പരിസരങ്ങളൊക്കെ അധിക വൃത്തിയോടും

എല്ലാവരെയും വിശേഷിപ്പിക്കാറ് ആലപ്പുഴ ജില്ല ഒരു പ്രതേക താല്പര്യമാണ് കാരണം പ്രകൃതി ഒരുപാട് അനുഗ്രഹം തന്നിട്ടുള്ള സ്ഥലമായത് കൊണ്ട് തന്നെ വള്ളവും കേരളീയരുടെ എല്ലാവിധ എല്ലാ നാനാ നാല് നാനാവിധത്തിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉൾകൊള്ളുന്നത് കൊണ്ട് വള വിദേശികളാണ് കൂടുതലും നമുക്കിവിടെ ഉണ്ടാകുന്നതും പിന്നെ പിന്നെ നമുക്ക് കിട്ടുന്നതെന്താന്നു വെച്ചാൽ നല്ല രീതിയിലുള്ള പുതിയ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മുടെ ഓരോ ഭക്ഷണത്തിലും ഉള്ളത് കൊണ്ടും എല്ലാവർക്കും വളരെ വളരെ താല്പര്യമുള്ള സ്ഥലങ്ങളൊക്കെ ആയത് കൊണ്ടും ഇവിടെ എല്ലാവരുമുണ്ട് സൗജന്യമായിട്ട് താമസ സ്ഥലം ലഭിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് നമ്മൾക്കിവിടെ ഹോം സ്റ്റേയ് ആയിട്ടുള്ളതുമുണ്ട് അല്ലാതെ കുറച്ച് ഹോട്ടലുകളും ഒക്കെ എല്ലാം അവൈലബിളാണ് നമ്മളിവിടെ വന്നാൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എല്ലാം കൊണ്ടും നല്ല സേവനമായിരിക്കും കിട്ടുന്നത് വിനോദ സഞ്ചാരികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപെട്ട ഒരു ഇതാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് എല്ലാ രീതിയിലും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് താനും